ആ പറ അതെ പറഞ്ഞോളൂ മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലേ ചെറിയ ഒരു പ്രശ്നം അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ കോഴിക്കോട് തന്നെ ഇഷ്ടം പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ആ അതായത് മിംസ് ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണോ

ആ ഓക്കെ ഓക്കെ നമ്മുടെ ഇവിടെത്തന്നെ ഉണ്ട് നമുക്ക് ഇപ്പം ഇവിടെനിന്ന് മിംസ് ഉണ്ട് മിംസ് നല്ലൊരു ഹോസ്പിറ്റൽ ആണ് കാരണം ഇന്ത്യയിൽ തന്നെ ആ എന്നിട്ട് ആസ്റ്റർ മിംസ് എന്നൊക്കെ പറഞ്ഞ് സാർ കേട്ടിട്ടുണ്ടാകും അവരുടെ ഒരു എന്താണ് ആസ്റ്ററിന്റെ ഒരു എന്താണ് പറയുക പാർട്ട്നർഷിപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണ് അപ്പം നല്ല രീതിയിൽ ഉള്ള അവർ ആ അതെ നല്ല ഡോക്ടേഴ്സ് ആണ് പിന്നെ ഉള്ളത് ബേബി മെമ്മോറിയൽ ആണ് അപ്പം അവിടെയും നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് പറയുക നല്ല ഹോസ്പിറ്റൽ ആണ് ഇപ്പം നല്ല ഡോക്ടർമാരാണ് നമ്മള ഇപ്പം ഈ എന്താണ് പറയുക ഇത് വന്നില്ലായിരുന്നോ നമുക്ക് കോഴിക്കോട് നിപ്പ ആ അപ്പം ആ സമയങ്ങളിൽ ഒക്കെ ഇവർ നല്ല രീതിയിൽ ഡോക്ടർമാർ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും കുഴപ്പം ഇല്ല പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് അത് പിന്നെ ഗവൺമെന്റ് ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അടിപൊളി ആണ് അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പം കൂടുതൽ ആയിട്ട് നല്ലവണ്ണം വന്നിട്ടുണ്ട് ഞങ്ങൾ കൂടുതൽ ആയിട്ടും റഫർ ചെയ്യുന്നത് പറഞ്ഞാൽ പൈസേന്റ വിഷയം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും റഫർ ചെയ്യുന്നത് മിംസ് ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ മിംസിലെ എ ടു ഇസഡ് സാധനങ്ങളും എല്ലാം എല്ലാം അതായത് ഇപ്പം നമുക്ക് ഇപ്പോൾ ഹാർട്ടിന് എന്തൊക്കെ ഇത് എന്താണ് പറയുക മഷീൻസ് വേണം അതെല്ലാം അവിടെ ഉണ്ട് ആ അപ്പം നമ്മൾ കൂടുതൽ ആയിട്ടും റെക്കമെന്റ് ചെയ്യുന്നത് മിംസ് ആണ് പിന്നെ ഇപ്പം കോഴിക്കോട് വിട്ട് പുറത്തേക്ക് ആണെങ്കിൽ നമുക്ക് എറണാകുളത്തുള്ള അമൃത ഇല്ലേ ആ അമൃത മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെയും നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം അവിടെയും നല്ല എന്താണ് പറയുക പൈസേന്റ ഒര് പ്രശ്നം മാത്രമേ ഉള്ളൂ സാധാരണക്കാർക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അതായത് മെഡിക്കൽ കോളേജ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ആണ് സാധാരണക്കാർക്ക് പൈസക്കാർക്ക് ഒക്കെ ആ ഒരു റേറ്റിൽ വേണമെങ്കിൽ അവിടേക്ക് വേണമെങ്കിൽ പോകാം

ആ അപ്പോൾ നിങ്ങൾ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ മിംസിൽ പോകുന്നത് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ സാർ ആ ഞങ്ങൾ തന്നെ ചെയ്തുതരും സാർ പറഞ്ഞാൽ മതി ഓക്കെ വിളിച്ചാൽ മതി